സാങ്കേതിക വിദ്യ നമ്മുട് ടെക്നോളജീന്ന് പറഞ്ഞ സാങ്കേതിക വിദ്യ നമ്മുടെ ജീവിതത്തിൽ പലമാറ്റങ്ങളും വരുത്തിയിട്ടുണ്ട് പണ്ടുകാലത്തു പറഞ്ഞു കഴിഞ്ഞാൽ ദുബായിലിരിക്കുന്ന മകനേ കാണാൻ അമ്മയും വല്ലാതെ കൊതിക്കും പക്ഷേ ഇന്ന് അതിന്റെ കാര്യമില്ല ദുബായിലിരിക്കുന്ന മകനെ മൊബൈലിൽ വഴി അല്ലെങ്കിൽ സ്മാർട്ട്ഫോൺ വഴി ഒരു വീഡിയോക്കോള് നടത്തുകയാണെങ്കിൽ ആ മകനെ കാണുകയും തത്സമയം സംസാരിക്കാനും സാധിക്കും മാത്രമല്ല ഇപ്പോൾ കാ നമ്മള് പേഴ്സ് പേഴ്സ് ആ പേഴ്സ് പോക്കറ്റടി അങ്ങനെ സംഭവങ്ങളെല്ലാം ഉണ്ട് പക്ഷേ ഇന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഒരുബാങ്ക് അക്കൌണ്ടിൽ അഞ്ചുലക്ഷം രൂപയായാലും നമുക്ക് മൊബൈലിൽ കൊണ്ടു നടക്കാം അതായത് അക്കൌണ്ട് ബന്ധിപിച്ച് കഴിഞ്ഞാൽ ഗൂഗിൾ പേ വഴി തന്നേ നമുക്ക് ഒരുലക്ഷം വരേയുള്ള എല്ലാ ട്രാൻസാക്ഷൻസും സാങ്കേത് ഏ ഇത് സാമ്പത്തിക ഇടപാടുകളെല്ലാം നടത്താൻ സാധിക്കും മാത്രമല്ല ഇപ്പോൾ ടിക്കറ്റു ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യാനും മറ്റു ടിക്കറ്റുകൾ ആയാലും ബുക്ക് ചെയ്യാനും സിനിമാ ടിക്കേറ്റെല്ലാം ബുക്ക് ചെയ്യാനുമുള്ള ആവശ്യങ്ങൾ ആവശ്യം നമ്മള് അവ അവിടെ പോകുവായിരുന്നു പതിവ് പണ്ടുകാലങ്ങളിൽ എന്നാൽ സാങ്കേതികവിദ്യയുടെ മികവുകാരണം ഇന്ന് നമുക്ക് വീട്ടിലിരുന്നു തന്നേ അതെല്ലാം ബുക്ക് ചെയ്തും തിരക്കില്ലാതെ തന്നേ തിക്കും തിരക്കില്ലാതെ തന്നേ നമുക്ക് സുഖായിട്ടിരിക്കാനും സാധിക്കുന്നുണ്ട് ടിക്കറ്റെടുത്ത് ട്രെയിനിലായാലും സിനിമയ്ക്കാ യായാലും ഇരിക്കാൻ സാധിക്കുന്നുണ്ട് പിന്നേ ഇപ്പോൾ നമുക്ക് പണ്ടുകാലങ്ങളിൽ ഈ സാ ഒരു ഒരു ഒരു കാര്യത്തെക്കുറിച്ചറിയണമെങ്കിൽ നമ്മള് ഒരു ലൈബ്രറിയില് ആ ഒരു പുസ്തകശാലയില് പോയിരുന്ന് നമ്മള് പുസ്തകങ്ങളിൽ നോക്കുകയാണ് പതിവുണ്ടാവുക എന്നാലിന്നങ്ങനെയല്ല ഇന്ന് വിരൽത്തുമ്പിലാണ് നമുക്ക് എന്തറിയണമെങ്കിലും ഈ സ്മാർട്ട് ഫോണിലോ അല്ലെങ്കിൽ ഒരു ലാപ്പിലോ നമ്മള് അതു ടൈപ്പ് ചെയ്തുകൊടുത്താൽ നമ്മള് സെർച്ച് ചെയ്തുകഴിഞ്ഞാൽ എല്ലാം അതുതന്നേ വരും അതായത് കൈതുമ്പിലാണ് ലോകത്തിലേ എല്ലാ ഉം അറിവുകളും നമ്മുടെ കൈതുമ്പിലൊതുങ്ങുന്നതാണ് മാത്രല്ല ഇപ്പം ഇൻറ്റർനെറ്റായാലും പണ്ടുകാലങ്ങളിൽ നമ്മുടെ ആ അപ്പോളോ മിഷൻന് അവരുപയോഗിച്ച കമ്പ്യൂട്ടറെന്ന് പറയുന്നത് ഒരു റൂമിൻറ്റെ സൈസുള്ളതായിരുന്നു എന്നാൽ ഇന്ന് കമ്പ്യൂട്ടറിൽ തന്നേ കമ്പ്യൂട്ടറിൽ തന്നേ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നമ്മുടെ കൈപ്പിടിയിൽ ഒതുങ്ങുന്ന മൊബൈലിൽ ചെയ്യാൻ സാധിക്കും മാത്രല്ല പണ്ടുകാലങ്ങളിൽ എല്ലാം ഒരു ഒരു സിനിമ സിനിമ നമ്മൾ ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ രണ്ടോ മൂന്നോ ദിവസം കാത്തിരിക്കണമായിരുന്നു എന്നാൽ കഴിഞ്ഞ വർഷം വരെ ഫോ ർജിയായിരുന്നു അതുകൊണ്ടൊരു മണിക്കൂർകൾക്കകം ഡൌൺലോട് ആയി കിട്ടുവായിരുന്നു എന്നാൽ ഇന്നത് ഫൈജി ആയിരിക്കയാണ് അതായത് മിനിറ്റുകൾക്കൊണ്ട് തന്നേ ഒന്നും രണ്ടും ജി ബി ഉള്ള സിനിമകൾ സുഖമായി ഡൗൺലോട് ചെയ്യാനും കാണുവാനും സാധിക്കും ഇതെല്ലാം സാങ്കേതിക സാ പുതിയ സാങ്കേതിക വിദ്യകളുടെ മികവുമൂലമെല്ലാമാണ് വന്നത് മാത്രല്ല ഇൻറ്റർനെറ്റ് ഉപയോഗം കൊണ്ട് പലർക്കും പലതും ആ നേടി എടുക്കാൻ സാധിച്ചിട്ടിണ്ട് ഒരു കമ്പനിയിലേക്ക് നമ്മളൊരു ഒരിതയക്കയാണെങ്കിൽ ഒരു റെസ്യൂമെന്തെങ്കിലും അയക്കുകയാണെങ്കിൽ അവ അവ ആ നമ്മളവിടെ പോയി ആ നമ്മുടെ ഇത് അപേക്ഷിക്കണമായിരുന്നു എന്നാൽ ഇന്ന് ഇൻറ്റർനെറ്റ് കൊണ്ട് വീട്ടിലിരുന്ന് തന്നേ നമുക്ക് ജോലി ചെയ്യാനും ജോലിക്കപേക്ഷിക്കാനും എല്ലാം സാധിക്കും പല നെറ്റ്വർക്കിംഗ് മൂലം ആ പല ഗുണങ്ങളും സമ്പാദിച്ചുക്കൊണ്ടിരിക്കയാണ് ഇപ്പോൾ നമുക്ക് വി ഒരു വീട്ടിലൊരു ഒരു വ്യാപാരം തുടങ്ങുകയാണെങ്കില് ആ വ്യാപാരം നമുക്ക് വികസിപിക്കാനായിട്ട് ഇൻറ്റർനെറ്റിൽ പരസ്യം കൊടുക്കാൻ സാധിക്കും പരസ്യകമ്പിനികളുടെ ഒന്നും സ ഇതില്ലിതാതെ തന്നേ നമുക്ക് സാ ഒരു ചെറിയ എഡ എഡിറ്റിംഗ് കഴിവുണ്ടെങ്കിൽ അത് നമുക്ക് പോസ്റ്ററും മറ്റ് ഇൻവിറ്റേഷനും മറ്റ് കാര്യങ്ങളെല്ലാം ചേർത്ത് നമ്മുടെ നമ്മുടെ വ്യാപാരത്തേ നമുക്ക് തന്നേ അഡ്വർട്ടൈസ് ചെയ്യാൻ സാധിക്കും അതുപോലെ തന്നേ ഫ്രീലാൻസിങ് ആ ട്രിപ് ഷോപ്പിങ് അങ്ങ ഡ്രോപ് ഷോപ്പിങ് അങ്ങനെ പല കാര്യങ്ങളും ഓൺലൈൻ ഷോപ്പ് ആ ഓൺലൈൻ സെല്ലിങ് അങ്ങനെ പല സാ സാമ്പത്തികമായിട്ടുള്ള പല നല്ല കാര്യങ്ങളും നമുക്ക് സാങ്കേതിക മികവു മൂലവും ഇൻറ്റർനെറ്റ് മൂലവും സാധിക്കുന്നതാണ് സ്മാർട്ട് ഫോണിൻറ്റെ കാര്യങ്ങളിൽ വരികയാണെങ്കിൽ ആ വാർത്തകളൊക്കേ പണ്ട് വായിക്കണമെങ്കിൽ നമ്മൾ ടിവിയോ ന്യൂസ്പേപ്പറോ കാണണമായിരുന്നു എന്നാൽ ഇന്നു തന്നേ ലോകത്ത് എന്തെല്ലാം നടക്കുന്നുവെന്ന് അപ്പപ്പോൾ തന്നേ നുമുക്ക് പുതിയ പുതിയ നോട്ടിഫിക്കേഷൻസ് ആയി മൊബൈലിൽ തന്നേ വരുന്നുണ്ട്